മറ്റ് പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് എൻ്റെ പ്രദേശത്ത് സ്കൂളുകളെ കുറിച്ചിട്ട് എനിക്ക് വലിയ അഭിപ്രായ വിത്യാസമില്ല കാരണം എന്താന്ന് വെച്ചാൽ അവ മറ്റ് പട്ടങ്ങളിലെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ സ്കൂളുകളും എൻ്റെ പ്രദേശത്തെ സ്കൂളും ഒരേ സിലബസ് ആണ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് അവടേയും സ്റ്റേറ്റ് സിലബസ് ആണ് എന്റെ പ്രദേശത്തും സ്റ്റേറ്റ് സിലബസ് ആണ് ഇനി സി ബി എസ് സി സിലബസ് ഉണ്ടെങ്കിൽ തന്നെ അതും എൻ്റെ പ്രദേശത്തും പഠിപ്പിക്കുന്നുണ്ട് ഇനി പ്രാധാന്യം കരിയർ പ്രാധാന്യം എൻ്റെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ അധികം നൽകാറില്ല എന്നാൽ തിരുവനന്തപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള പട്ടണങ്ങളിൽ ഞാൻ കരിയർ പ്രാധാന്യം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസം കണ്ടിട്ടുണ്ട് എൻ്റെ പ്രദേശം ഞാൻ പഠിച്ചു വളർന്ന എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യാപാര സാഹചര്യമുള്ള ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ വ്യാപാരത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയേണ്ട കരിയർ ഫോക്കസായിട്ടുള്ള സ്ഥലങ്ങളല്ല അവിടെയൊക്കെ കരിയറിന് ഫോക്കസ് നല്കുന്നുമില്ല